എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ട് കൃത്യദിവസം തന്നെ നിങ്ങൾ സാധനം കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ നന്ദി ഉള്ളൊരു കാര്യമാണ് കാരണം എനിക്ക് രണ്ട് ദിവസം കഴിയുമ്പം അല്ല നാളെയാണ് ആ സാധനത്തിന്റെ അത്യാവശ്യം ഉള്ളത് കാരണം നാളെ എനിക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് പോകണമായിരുന്നു അപ്പം പിന്നെ നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ ആ സാധനം നിങ്ങൾ എന്താ പറയുക ആ ദിവസം തന്നെ ഞാൻ വിചാരിച്ചു രണ്ടു നാളെ കിട്ടിയിട്ട് എനിക്ക് കാര്യമില്ല ഇന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിന് അനുസരിച്ചാണല്ലോ ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഇന്നെങ്കിലും ഇന്നു കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാളെ കിട്ടിയിട്ട് ഇനി പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കാനെ പറ്റുള്ളൂ പക്ഷേ ദൈവാധീനം കൊണ്ടും പിന്നെ നിങ്ങളുടെ ആ ഒരു പങ്ക്ച്വാലിറ്റി ഉണ്ടല്ലോ കൃത്യനിഷ്ഠ കാര്യങ്ങൾ എല്ലാം വളരെ നന്ദി ഉണ്ട് കേട്ടോ കമ്പനിയിനോടാണെങ്കിലും പ്രൊഡക്ട് കൊണ്ടെത്തിക്കാൻ ഉള്ള മനസ്സും ആളു കൊണ്ട് തന്ന ഡെലിവെറി ബോയ് ആണെങ്കിലും എല്ലാം കൊണ്ടും ടേങ്ക്സ് ഫോർ എവരിതിങ്ങ്